മേയ് ഐ കം ഇൻ സർ ഗുഡ് മോർണിംഗ് സർ എൻറെ പേര് അശ്വിൻ എന്നാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ മക്കളുടെ അഡ്മിഷന് വേണ്ടിയിട്ടാണ് ഒന്ന് എൽ കെ ജിയും പിന്നെ എൻ്റെ മകൾ സെക്കന്റിലേക്കുമാണ് അപ്പോൾ അതെന്നെ ആൺകുട്ടി എൽ കെ ജി പെൺകുട്ടി രണ്ടാം ക്ലാസ്സ് ഇന്തെന്ത് ഡൊനേഷനാണോ ഓക്കെ മാസം എത്രയാണ് വരുന്നത് അപ്പോൾ ഫീസ് മൂന്ന് മാസം മൂന്ന് മാസമായിട്ടാണോ അടക്കേണ്ടത് ഓ അപ്പോൾ ഒരു മാസം രണ്ടുപേർക്കും അതേപോലെ അല്ലേ പിന്നെ എൻ്റെ മക്കളല്ലേ പഠിക്കാണ്ടിരിക്കുമോ പിന്നെ യൂണിഫോമിൻ്റെ കാര്യങ്ങളൊക്കെ യൂണിഫോമൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് അല്ലെ ഫീസിൽ ഐ ഡി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബുക്കോ ബുക്ക്സ് ഒക്കെ ബുക്ക്സ് കാര്യങ്ങളൊക്കെ ഫീസിൽതന്നെ ഉണ്ടോ ടൈമിങ്ങൊക്കെ എങ്ങനെയാണ് സ്കൂൾ ടൈമിംഗ് ആ ഓക്കെ ഓക്കെ ബസ്സ് ബസ്സൊക്കെ പ്രൊവൈഡഡ് ആണല്ലേ കൊഴൽമ്മനം പറയും ഫീസൊക്കെ അതിന് ഓ അതൊരു വളരെ നല്ലൊരു തീരുമാനമാണ് താങ്ക് യൂ സർ അപ്പോൾ താങ്ക് യൂ ഓക്കെ സർ